ഞാനൊരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിരുന്നു എനിക്കത്യവശ്യമാണ് എന്റെ ഗ്യാസ് സിലിണ്ടർ തീര്ന്നിരിക്കുകയാണ് അപ്പോള് ഞാന് ഇവിടെനിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കുകയാണ് എന്റെ വിലാസം ഞാന് ഇതില്കൂടി പറഞ്ഞാല് മതിയോ അതോ നിങ്ങളുടെ ഗ്യാസ് ഏജന്സിയുമായി ബന്ധപ്പെടണോ എനിക്കെത്രയും വേഗം എന്റെ ഉപഭോക്താ ഐ ഡി ഒക്കെ പുതിയ വിലാസത്തിലേക്ക് മാറിയിരിക്കയാണ് എത്രയും വേഗം എനിക്ക് ഗ്യാസ് സിലിണ്ടർ തരുവാനുള്ള ഒരു നടപടി ഉണ്ടാകണം അതിന്റെ പ്രോസസിങ്ങ് ഞാന് നിങ്ങളോട് അഭ്യര്ത്ഥിക്കുകയാണ് നേരിട്ടവിടെ ഗ്യാസ് ഓഫീസില് വരണമെങ്കില് ഞാന് നിങ്ങളുടെ ഓഫീസില് എത്താം ഇല്ലെങ്കില് എനിക്ക് എന്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്ക് ഗ്യാസ് സിലിണ്ടർ മാറി തരണമെന്ന് അപേക്ഷിക്കുന്നു